ഇരുപത്തിമൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പതിനാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി ഒമ്പത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്